ആ നാളെ എയർപോർട്ടിലേക്ക് പോകാൻ കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നാളെ അയാൾ എത്ര മണിക്കെത്തുമെന്ന് ഒന്ന് അറിയാൻ പറ്റുമോ ആ ഡ്രൈവറിൻ്റെ നമ്പർ എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ അതെത്രെ മണിക്കാണ് എത്തുക എന്ന് എനിക്കൊരു ഏകദേശം പുലർച്ചെ നേരം രണ്ട് മണിക്കാണെനിക്ക് പോകാനുള്ളത് അത് അപ്പോൾ ഏകദേശം ഒരു മണിയോടെ എൻ്റെ വീട്ടിലെത്തുകയാണെങ്കിൽ എല്ലാ എൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞ ലൊക്കേഷൻ എത്തുകയാണെങ്കിൽ എനിക്കെൻ്റെ ലഗ്ഗേജും കാര്യങ്ങളൊക്കെ അതിൽ പക്ക പാക്ക് ചെയ്തിട്ട് വയ്ക്കാമായിരുന്നു ഞാൻ പാക്ക് ചെയ്തു വച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു എത്ര സമയം കൃത്യം എത്തും എന്നൊന്നും പറഞ്ഞു തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരം ആവുമായിരുന്നു കൃത്യ സമയത്ത് എത്തിച്ചേരണം ആലോചിച്ചു കഴിഞ്ഞാൽ വൈകിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ബുക്ക് ചെയ്യാൻ ഒന്നും പറ്റില്ല